ചിത്രങ്ങളിൽ എന്നു പറയുമ്പോൾ ഞങ്ങൾ കൂടുതലും ഇടുന്ന പ്രകൃതിയായി ബന്ധപ്പെട്ടും മൃഗങ്ങളെയും പ്രകൃതിയിനെയൊക്കെപ്പറ്റിയുള്ള ചിത്രങ്ങളാണ് എടുക്കുന്നത് ഇപ്പം എൻ്റെ അമ്മ വീടെന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് അതൊരു നാടൻ തനിമ നിൽക്കുന്നൊരു സ്ഥലമാണ് അവിടെയിപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് പാടത്താണെങ്കിലും താറാവുകളെയൊക്കെ ഇറങ്ങുന്നുണ്ട് അവരൊക്കെ ഓടി ഇങ്ങനെ കളിക്കുന്നത് കാണാൻ നല്ല രസമാണ് അത് ആ ഒരു പിച്ചെറെടുക്കും പിന്നെ അവിടെ എല്ലാ വീട്ടിലും കോഴിയും താറാവും ഒക്കെയുണ്ട് പിന്നെ അവിടെയുള്ളവരൊക്കെ പയ്യെ കൃഷിയൊക്കെ ചെയ്യും അതുപോലെ നെല്ലൊക്കെ കൊയ്യുന്ന ഫോട്ടോ അത് ചില സീസണിലൊക്കെ ചെല്ലുമ്പം നെല്ലൊക്കെ കൊയ്യുന്ന ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടുവരും മാത്രമല്ല നെല്ല് ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പം നല്ല രസമാണ് അതിൻ്റെ ഇടയ്ക്ക്കൂടിയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും പിന്നെ എൻ്റെ വീട്ടിൽ പട്ടി ഉണ്ട് കോഴി ഉണ്ട് താറാവുണ്ട് അപ്പോൾ അവരുടെ അവരെയൊക്കെ ചില സമയത്ത് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കും ആ സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട് ആ ഫോട്ടോ എടുക്കും പിന്നെ ഞങ്ങളുടെ പട്ടിയിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ട്രെയിൻ ചെയ്യിക്കാൻ നേരത്തെയുള്ള ഫോട്ടോ എടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ സൂവിലൊക്കെ പോവുമ്പോൾ കുരങ്ങൻ്റേയും അവിടെയുള്ള മൃഗങ്ങളുടേയൊക്കെ ഒരു അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് ലുക്കിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ടൈഗറാണെങ്കിൽ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത് മാൻ കിടാക്കളാണെങ്കിൽ ചാടിത്തുള്ളി ഭയങ്കര സന്തോഷത്തിലായിരിക്കും നടക്കുന്നത് അതൊക്കെ ഒരു പ്രകൃതിയായിട്ട് പിന്നെ കടൽ ബീച്ചിൽ പോവുമ്പോൾ ബീച്ചിലെ ഫോട്ടോ എടുക്കും അതിപ്പോൾ വൈകുന്നേരം സൺസെറ്റ് ടൈമിലൊക്കെ സൺസെറ്റ് ഫോട്ടോ എടുക്കാറുണ്ട് ഇതിപ്പോൾ ഓരോ സമയത്തും ബീച്ചിൽ ഓരോ ഒരു അറ്റ്മോസ്ഫിയറാണ് അത് അത് ഓരോ സമയത്തും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആ അതെന്ത് ഏത് സമയത്താണോ നമ്മൾ തന്നെ ആ സമയത്തുള്ള ഫോട്ടോ മൊത്തം എടുത്ത് വെക്കും പിന്നെ ഞങ്ങൾ ആ ഓരോ സ്ഥലത്ത് ഇപ്പോൾ അല്ല ഓഹ് അല്ല ഓപ്പണായിട്ടുള്ള സ്ഥലം കണ്ടാൽ അത്ര എടുക്കത്തില്ല അത്യാവശ്യം ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലം കാണുമ്പോൾ നല്ല ഒരു ഇത് തോന്നും അപ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട്

ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാറുള്ളതൊക്കെ എടുക്കും ഫുഡ് എന്നു പറയുമ്പോൾ അതായത് പുറത്തിരുന്ന് കഴിക്കുന്നത് പുറത്തിരുന്നു കഴിക്കുന്നത് ഒരു രസമാണ് കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാൻ ആ ആ സമയം എടുക്കും പിന്നെ ആ ഫോട്ടോ എടുക്കുന്നതെന്ന് വന്നാൽ പ്രകൃതിയുടെ എടുക്ക് അത് പിന്നീട് കാണാൻ നേരത്ത് വീണ്ടും ഇതാണ് ഒരു രസമാണ് വീണ്ടും ആ ഒരു ഫോട്ടോ വീണ്ടും വീണ്ടും കാണാൻ ഒരു രസമാണ് അത് നമ്മൾ ഒരു പ്രത്യേക പോസ്സിലൊക്കെയാണ് എടുക്കുന്നത് അതും ആ ആനിമൽസൊക്കെ എൻ്റെ വീട്ടിലുള്ള കോഴിയും താറാവും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ അവരൊക്ക ഓരോ പോസ്സിൽ നിൽക്കുന്ന ഞാൻ ഇരുന്ന് എടുക്കും ഫോട്ടോ അതിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കും

ഇവിടെ വന്നിരിക്കിമ്പം അവരുടെ ഒക്കെ ആ അടുത്തോട്ട് പോവാതെ ദൂരെ നിന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും നല്ല രസമാണ് ഇവിടെയാണ് അത്യാവശ്യം ചെടിയൊക്കെ ഒള്ളൊരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ അവിടെയാണ് വീട്ടിൽ തന്ന അത്യാവശ്യം ചെടി ഉണ്ട് അപ്പോൾ ആ ചെടിയാണ് ഒരു റോസാപ്പൂവൊക്കെ വിരിഞ്ഞാൽ ഒരു റോസാപ്പൂ വിരിഞ്ഞാൽ ആ ദിവസം ഞാൻ ഒരു ആയിരം ഫോട്ടോ എടുത്തിരിക്കും